ട്രക്കിങ്ങ് സ്ഥലങ്ങളിൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ തരത്തിലുള്ള മാലിന്യങ്ങൾ കണ്ടു വരുന്നുണ്ട് അതിൻ്റെ മാലിന്യങ്ങളുടെ പ്രധാനകാരണമെന്നു പറയുന്നത് പ്ലാസ്റ്റിക്ക് തന്നെയാണ് നമ്മൾ സാധാരണ നമ്മളുടെ നാട്ടിൽ പ്ലസ്റ്റിക്കുകൾ വലിച്ചെറിയും പോലെ തന്നെയാണ് ട്രക്കിങ്ങിനു പോകുന്ന സമയത്തും അവിടെയും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങൾ കൂട്ടുന്നത് നമ്മൾ ചില ആളുകൾ ഈ ട്രക്കിങ്ങിനു പോകുന്നതുതന്നെ ഇവിടുത്തെ മാലിന്യങ്ങളവിടെ കൊണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ശാന്തതയും സമാധാനവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു മനോഹാരിത നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കുകൾ അവിടെ കൊണ്ടേ അവിടെ കൊണ്ടേ നിക്ഷേപിക്കുന്നു മാലിന്യങ്ങൾ കുമിഞ്ഞ് കുമിഞ്ഞ് കൂടുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ട്രക്കിങ്ങിനു പോകുന്ന സമയങ്ങളിൽ ഒരിക്കലും പ്ലസ്റ്റിക്ക് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് പോകാതിരിക്കുക മണ്ണിൽ അലിഞ്ഞു ചേരുന്ന കടലാസ്സു പോലെയുള്ള ഉത്പന്നങ്ങളിൽ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടു പോയി അതുപയോഗിക്കേണ്ടതാണെന്നാണ് എൻറ്റൊരു അഭിപ്രായം അല്ലാതെ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനെ പ്ലാസ്റ്റിക്ക് വലിച്ചെറിയുന്നൊരു പ്രവണത നമ്മളാരിലെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ അവരെ ഉപദേശിക്കണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവരതിൽ നിന്നു പിന്തിരിപ്പിച്ചു കൊണ്ടു നമുക്ക് ഒരു ഒരു ഇത് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ട് വരികയാണെങ്കിലതെത്രയും പെട്ടെന്നു തന്നെ അവിടെ നിന്ന് ആ ഒരു മലിന്യം നീക്കാനും അങ്ങനെ മാലിന്യങ്ങൾ ഇടുന്നതിനെ ഇടുന്നതിനെതിരായി അവിടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അറിയിപ്പുകളോ വെക്കേണ്ടതും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം അല്ലെങ്കിൽ നമ്മളധികാരികളെ അറിയിക്കണം അധികാരികളുടെ കണ്ണിൽ ഇങ്ങനത്തെ ഒരു സംഭവം എത്തിച്ചു കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു ഇത് അപ്പം നമ്മളത് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു വൃത്തിഹീനമായ ഒരവസ്ഥ ആ കാടുകളിൽ അല്ലെങ്കിൽ ആ ട്രക്കിങ്ങ് സ്ഥലങ്ങളിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് എൻറ്റഭിപ്രായം